ഞങ്ങളുടെ പ്രദേശത്ത് ബിസിനസ്സ് പ്രവർത്തനം നടത്തുവാനായി ഉപയോഗിക്കുന്ന പ്രകൃതി വിഭവങ്ങളിൽ പെടുന്ന ഒന്നാണ് മത്സ്യങ്ങൾ കരണം ഞങ്ങളുടെ അടുത്ത് കടൽ ഉണ്ട് അപ്പോൾ കടലിൽപ്പോയി ആൾക്കാർ മത്സ്യബന്ധനം നടത്തി മീനുകളെ കൊണ്ട് വരുന്നു അപ്പം ചെറുകിട ബിസിനസ്സുകാർ അത് പോയി എടുത്ത് കൊണ്ട് വന്ന് ബിസിനസ്സ് നടത്തുന്നു അപ്പം അത് വഴി വളരെ വലിയ ലാഭമാണവർക്ക് ലഭിക്കുന്നത് ചെറുവള്ളങ്ങളിൽ പോകുന്ന മത്സ്യബന്ധന ചെറുവള്ളങ്ങളിൽ മത്സ്യ ബന്ധനത്തിന് പോകുന്ന ആൾക്കാരും വലിയ കപ്പലുകളിൽ പോകുന്ന ആൾക്കാരും ഉണ്ട് വലിയ കപ്പലുകളിൽ പോകുന്ന ആൾക്കാർ ഉൾകടലുകളിൽ പോയി വലിയ മീനുകളെ പിടിച്ചുകൊണ്ട് വരികയും അത് ചിലപ്പോൾ ദിവസങ്ങളെടുത്തിട്ടായിരിക്കും അവർ തിരിച്ച് വരുന്നത് അങ്ങനെ കൊണ്ട് വരുന്ന മീനുകളാണ് ചൂര കേര സ്രാവ് ഓലക്കൊടിയൻ തുടങ്ങിയ മീനുകൾ അവ കൊണ്ട് വന്ന് ബിസിനെസ്സുകാരത് എടുത്ത് ഗാ ഫി ഫിഷ് സ്റ്റാളുകളിൽ കൊണ്ട് വന്ന് വിൽക്കുന്നു ചെറിയ വള്ളങ്ങളിൽ പോകുന്ന മത്സ്യബന്ധനത്തിന് പോകുന്ന ആൾക്കാർ കടലുകളിൽ പോയി അവർ ഉൾകടലുകളിലേക്ക് അങ്ങനെ പോകാറില്ല അവർക്കത്രയും വലിയ മീനുകളും ലഭിക്കാറില്ല അതും കൊണ്ട് വന്ന് ആൾക്കാർ എടുത്ത് ബിസിനസ്സ് നടത്താറുണ്ട്